എനിക്ക് ഹൈക്ക് ചെയ്യുവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭൂപ്രദേശം മലകളാണ് മലകളുടെ വനങ്ങളുടെ ഇടതൂർന്ന വൃക്ഷലലാദികൾ വൃക്ഷങ്ങളെ ളും അതിൻ്റെ ഇടകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഓരോ കാഴ്ചകളും നമ്മുടെ മനസ്സിനെ കുളിർമയുള്ളതാക്കും കണ്ണിന് കാഴ്ചയുള്ളതാക്കും കുളിർമയുള്ളതാക്കുകയും ചെയ്യുന്നു മ പ്രത്യേകിച്ച് മഞ്ഞ് മൂടിയ അവസ്ഥകളിൽ മേഘങ്ങൾ ഇങ് ആകാശത്തെ ഇങ്ങനെ മൂടി ആവരണം ചെയ്തിരിക്കുന്ന ആ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ നമ്മള് അത്ഭുതമായി നമുക്ക് എന്തോ ഒര് ആ അനുഭൂതി ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു സൂര്യ അസ്തമയ സമയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുകയാണെങ്കില് ആ സൂര്യൻ്റെ ആ തീജ്വാല പോലത്തെ ആ പ്രകാശം നമ്മളുടെ കണ്ണിനെ കുളിർമയുള്ളതാക്കി തീർക്കുകയും പ്രകൃതി സൗന്ദര്യം കൂടുതലായി നമ്മൾക്ക് ഉള്ള ആസ്വദിക്കാനുള്ള നമുക്ക് ഭംഗി മനസ്സിലാക്കാനുള്ള പിന്നെ ഇത് കിട്ടുകയും ചെയ്യുന്നൊണ്ട്